സാംസ്കാരിക ഉത്സവങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ഒരു മലയാളി എന്നുള്ള നിലക്ക് ആദ്യമായി എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഓണം തന്നെയാണ് ഓണം തികച്ചും കുട്ടികൾ ഇപ്പം ബാല്യകാല ഓർമ്മകൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് എങ്കിൽ കുട്ടിക്കാലത്തെ ഏറ്റവും സന്തോഷമുളവാക്കുന്ന ഒരു ഉത്സവമായിരുന്നു ഓണം കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് സദ്യ ഉണ്ടാക്കുകയും തിരുവാതിര കളിക്കുകയും ഊഞ്ഞാലാടുകയും അത്തപൂക്കളമിടുകയും ചെയ്യുന്ന അത്തപ്പൂ ഇടാനുള്ള പൂപറിക്കാനായിട്ട് രാവിലെ പാടത്തേക്ക് പോകുന്ന ആ സുന്ദരമായ ഓർമകൾ തന്നെയാണ് ഓണം എന്ന് പറയുമ്പോൾ എനിക്കും പങ്കുവയ്ക്കാനുള്ളത് പിന്നെ ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഒരു സെഗ്മെന്റ് ആണ് ഓണസദ്യ എന്ന് പറയുന്നത് പലതരം പലതരം കറികളും കൂട്ടി ഓണസദ്യ കഴിക്കുകയും മൂന്നിനം പായസം കൂട്ടി സദ്യ കഴിക്കുന്ന അതും കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് കഴിക്കുന്നതിൻ്റെ അനുഭവം പറഞ്ഞ് അറിയിക്കാനാവില്ല അത് അത്രത്തോളം സന്തോഷമുളവാക്കുന്നത് തന്നെയാണ് ശേഷമുള്ള ഓണക്കളികളും ഇതിൽ പ്രധാനമായി ഒരു പങ്ക് വഹിക്കുന്നു സാധാരണ ഈ ഒരു ഓണക്കളികൾ എന്ന് പറയുമ്പോൾ വിവിധതരത്തിലുള്ള കണ്ണുകെട്ടി കളി മുതൽ തുടങ്ങി തുമ്പിത്തുള്ളൽ അങ്ങനെ തനതായ ഒത്തിരി അധികം കളികളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഒരു കുട്ടി കുട്ടിയുടെ ഉള്ളിൽ ഏറ്റവും സന്തോഷം ഉളവാക്കാനായിട്ട് കെൽപ്പുള്ള ഒരു ഉത്സവം തന്നെയാണ് ഓണം എന്ന് പറയുന്നത് ഈ പൊതുവെ ഓണം നടക്കാറ് ചിങ്ങമാസത്തിലാണ് ഓണം വരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കുടുംബക്കാരൊക്കെ ഒന്നിച്ചുചേരുന്നത് തന്നെ വളരെ അധികം സന്തോഷമാണ് ഈ സാംസ്കാരിക ഉത്സവങ്ങളേക്കാൾ അത് ക്കാൾ അതൊരു ഒരുമയുടെ ഉത്സവമായിട്ട് വിളിച്ച് പറയുക എന്നുള്ളതാണ് ഈ ഒരു ഉത്സവത്തിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ആൾക്കാരിലേക്ക് ഒരുമ കൊണ്ടുവരാനും മനുഷ്യർ എല്ലാവരെയും ഒരുപോലെ കാണാനും ആപത്തൊന്നും വരാതെ എല്ലാവർക്കും ആമോദത്തോടെ വസിക്കാനും പറ്റിയൊരു കാലത്തിൻ്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് ഓണം നമ്മൾ ആചരിച്ചു വരുന്നത്